കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് വരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ നമ്മൾ മലയാളം നമ്മൾ കേരളീയർ മലയാളികളാണ് കേരളത്തിൽ ജീവിക്കുന്നവരാണ് അപ്പം നമുക്ക് മലയാളം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പം നമ്മൾ മലയാളമാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അപ്പം നമ്മൾ കുട്ടികളെ നന്നായി മലയാളം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കണം ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടുതലായിട്ട് ആകൊരു മലയാളത്തിൻ്റെ പീരീഡ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളു അപ്പം നമ്മൾ വീടുകളിൽ വന്ന് കഴിയുമ്പത് കൂടുതൽ കുട്ടികളിലേക്ക് മലയാളം ഇതാക്കി കൊടുക്കാൻ നമ്മൾ കൂടുതൽ സംസാരിക്കാനും പറഞ്ഞ് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം മലയാളം മീഡിയത്തിൽ പഠിക്കുന്നൊരു കുട്ടികൾക്കാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും എന്താണ് മാക്സും ഹിന്ദിം ഇംഗീഷു ഒഴിച്ച് ബാക്കിയെല്ലാം സബ്ജക്റ്റുകളും നമ്മൾ മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത് കുട്ടികൾ കൂടുതലും മലയാളം സംസാരിക്കുന്നുണ്ട് പിന്നെ മലയാളം കേരളീയരുടെ ദേശീയ ഭാഷ തന്നെയാണ് അപ്പം മലയാളംന്ന് പറയുന്നത് നന്നായി പറയാനും അതിനെ ഉച്ചാരണങ്ങൾ മനസ്സിലാക്കി മലയാളത്തിന് ഒത്തിരി അർത്ഥമുള്ളു വാക്കിന് കൂടുതൽ കൂടുതൽ അർത്ഥങ്ങൾ വരുന്നുണ്ട് തമിഴിനാട് സാമ്യമായി നമുക്ക് തോന്നും പക്ഷേ തമിഴ് തമിഴ് തന്നെയാണ് മലയാളം മലയാളം പഠിക്കാൻ പുറത്തുള്ളവർ പറയും മലയാളം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മൾ മലയാളികളായത് കൊണ്ടായിരിക്കാം നമുക്ക് മലയാളം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒത്തിരിയുണ്ട് മലയാളത്തിൽ ഇല്ലേ ഇപ്പം ഒരു തെങ്ങ് എന്ന് പറയുന്നതും തേങ്ങാ എന്ന് പറയുന്നതും തെങ്ങിന് എ ൻ്റെ ശബ്ദം വരുന്നത് എ ഏ ഐ ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ വരുമ്പോൾ ചിഹ്നങ്ങളൊന്ന് മാറിയാൽ നമ്മുടെ അർത്ഥങ്ങളും മാറും വാക്കുകൾ മാറും മലയാളം വളരെ ശ്രദ്ധയോട് ഉപയോഗിക്കുന്നൊരു കാര്യമാണ് കാരണം അതിനകത്ത് ചിഹ്നങ്ങൾ വരുമ്പോൾ അർത്ഥം മാറുന്നത് കൊണ്ട് മലയാളം ഒത്തിരി ചിഹ്നങ്ങളും അക്ഷരങ്ങളും എല്ലാം വരുന്നുണ്ട് അമ്പത്താറക്ഷരത്തോളം വരുന്നുണ്ട് ഈ മലയാളം അല്ലേ അപ്പം മലയാളത്തിൽ നമ്മൾ കൂടുതൽ സംസാരിക്കാനും മലയാളം തന്നെ എടുത്ത് പഠിക്കാനൊക്കെ കുട്ടികൾ ബുദ്ധിമുട്ട് കാണിക്കും കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വരുന്നൊരു ഇതാണ് ഇ ഈ ചിഹ്നങ്ങൾ വരുമ്പോൾ അവർക്ക് തന്നെയൊരു ഇത് ചെറിയ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കി വരുമ്പം തന്നെ അത് ഒത്തിരി പിള്ളേർക്ക് ഇപ്പോഴും ഡൗട്ടുകൾ മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ് അപ്പമത് നമ്മൾ കുട്ടികളെ ഇരുത്തി സ്വരാക്ഷരങ്ങൾ അ ആ ഇ ഈ എന്നും പറഞ്ഞുള്ള അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ഇങ്ങനെയെല്ലാം വരുന്നുണ്ട് മറ്റ് ലാംഗ്വേജ്കൾക്ക് വരുമ്പോൾ ഹിന്ദി വരും നോക്കുമ്പോൾ ഹിന്ദീല് വളരെ കുറച്ചക്ഷരങ്ങൾ മാത്രമേ വരുന്നുള്ളു ഇംഗ്ലീഷിനകത്താണെങ്കിൽ വരുമ്പോൾ എ ബി സി ഡി അത് ആ ചിഹ്നങ്ങൾ മാത്രമേ വരുന്നുള്ളു മലയാളത്തിൽ വരുമ്പോഴാണ് സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ പിന്നെ അങ്ങനെ ഇ ഇ വരുമ്പം ഇ ടെ ചിഹ്നം അ വരുമ്പോൾ ആ എന്നുള്ള ചിഹ്നം എ വരുമ്പോൾ എ ൻ്റെ ചിഹ്നങ്ങൾ അങ്ങനെ ചിഹ്നങ്ങൾ വേറെ വരുന്നുണ്ട് അപ്പം മലയാളത്തിൽ ഒത്തിരി ചിഹ്നങ്ങളും അക്ഷരങ്ങളും പഠിക്കാനുണ്ട് അപ്പം പൊതുവെ കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വലിയൊരു ഇത്ണ്ടാവുല്ലോ കാരണം അവർക്കത് ഈ ചിഹ്നങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പഴും ചുറ്റിക്കെട്ടുള്ളത് ഇൻന് ഇൾള് ഇങ്ങനെയൊക്കെ വരുമ്പം അവർക്കൊരു തപ്പലും തടച്ചിലും ഒക്കെയുണ്ടാവും അപ്പം നമ്മളത് കൂടുതലിരുത്തീട്ട് കുട്ടികളെ ആദ്യം മുതൽ ഒന്നീ പഠിക്കുന്നൊരു കുട്ടിയെ നമ്മളാദ്യം പഠിപ്പിക്കുന്നത് സ്വരാക്ഷരങ്ങളാണ് അല്ലേ അ ആ അപ്പം അമ്മ ആമ അപ്പം ഓരോ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അതിന് സാമ്യമായ എന്ന്വച്ചാൽ അമ്മ അ പഠിക്കുമ്പോൾ നമ്മൾ അമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിക്കും ആ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആന അതേപോലെ ഇ എന്ന് പറയുമ്പം ഇല ഈ എന്ന് പറയുമ്പം ഈച്ച അങ്ങനെ ഓരോ അക്ഷരങ്ങളും പഠിക്കുമ്പം നമ്മൾ അതിന് മാച്ചിങ്ങായിട്ട് അതിന് ആ അക്ഷരം കൊണ്ടെഴുതുന്ന എന്താണോ അത് പറഞ്ഞ് കുട്ടികളെ അത് നമ്മൾ കുട്ടികളെ ഒന്ന് കാണിച്ച് കൂടെ പഠിപ്പിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കൂട ഓർമ്മ ശക്തിയുണ്ടാവും കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് പ്രധാനമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരായത് കൊണ്ട് നമ്മൾ കുട്ടികളെ മലയാളം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ കേരളത്തിലെവിടെപ്പോയാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നമ്മൾ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് ലാംഗ്വേജ് പിന്നൊരു ഭാഷാ ശൈലിക്കൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളു മലയാളം തന്നെയാണ് നമ്മുടെ പതിനാല് ജില്ലയിലും നമ്മൾ മലയാളം തന്നെയാണ് സംസാരിക്കുക അപ്പം കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രഥമവുമാണ് അപ്പം എല്ലാവരും മലയാളം നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക